ഞാൻ ജോലിയെടുത്ത സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ പണ്ട് ഒരുപാട് നല്ല ചങ്ങായിമാർ ചങ്ങാതിമാരായിരുന്നു പക്ഷേ ഒരു ദിവസം എന്തോ പ്രശ്നത്താൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കലഹമായി അടിച്ചു പിരിയേണ്ടി വന്നു ഇപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങളെന്താക്കി ഞങ്ങൾ ഒരേ ഇതാണ് ചെയ്തത് പോലീസിൻ്റെ ഇതിന് ടെസ്റ്റൊക്കെ ചെയ്തത് ഞങ്ങളൊരുമിച്ചാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി അതും ഒരു സ്റ്റേഷനിൽ തന്നെയായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പതുക്കെപ്പതുക്കെ ഇങ്ങനെ സാറുമ്മാരെല്ലാം ഞങ്ങളോട് ഇങ്ങനെ നിങ്ങളെന്താണ് നിങ്ങൾ പരമാവധി സഹകരിച്ച് ചെയ്യണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് കുറേക്കാലം എടുത്തുക്കഴിഞ്ഞപ്പം നമ്മൾ ഇടയ്ക്കിങ്ങനെ മിണ്ടിയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാലും പഴയ കാര്യങ്ങൾ മനസ്സിൽ വച്ചുകൊണ്ട് തന്നെയായിരുന്നു പറയുക എന്നാലും ഒട്ടും മറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നു അത് പതുക്കെപ്പതുക്കെ അദ്ദേഹം എന്നോട് മിണ്ടാൻ തുടങ്ങി പിന്നെ ഞാനും അദ്ദേഹുമായിട്ട് മിണ്ടാൻ തുടങ്ങി പിന്നെ നമ്മൾ പഴയ കൂട്ട് അങ്ങനെ നേർവഴിയായി തിരിച്ചുവന്നു